സർക്കാർക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു വിനോദമാണ് ടൂറിസ്റ്റുകള് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അത് ഞങ്ങള് ഗ്രാമ പഞ്ചായത്ത് ആയതുകൊണ്ട് ഞങ്ങളുടെ അവിടോട്ട് കൂടുതൽ ആളുകൾ എത്തി ചേരുകയില്ല എങ്കിലും ഞങ്ങളുടെ ഗ്രാമ പഞ്ചായത്തിനോട് ഞങ്ങള് കുറച്ചടുത്തായതു കൊണ്ട് ഞങ്ങള് ടൂറിസ്റ്റ്കാരെ കാണുകയും വിനോദ സഞ്ചാരത്തെപ്പറ്റി സംസാരിക്കുകയും പിന്നെ ഞങ്ങളുടെ സ്ഥലത്തെ വിനോദ സഞ്ചാരങ്ങളും അതിൻ്റെ മെച്ചപ്പെടുത്തുന്നതിനും ഞങ്ങള് ഗ്രാമപഞ്ചായത്തുകാരുവായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ ഞങ്ങൾക്ക് പിന്നെ കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ടൂറിസ്റ്റ്കാരെ കാണുക എന്ന് പറയുന്നത് കാരണം ടൂറിസ്റ്റ്കാരെ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് പിന്നെ കൂടുതൽ പൈസകൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട് കാരണം അതുപോലെ ഒരുപാട് ജോലികൾ അതുപോലെ നമ്മൾക്ക് കിട്ടുന്നുവുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് അതിൽ ജോലി ചെയ്യുന്നത് അതുപോലെ നമ്മളുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് വഞ്ചികളിൽ തുഴഞ്ഞ് അവരെ കൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആ ഒരു ഗൈഡിനെ ഏർപ്പാടാക്കും ഞങ്ങളൊക്കെ പോയി അവരുടെ മുന്നിൽ പോയി നിൽക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് അവര് ആഹാരം കഴിക്കുമ്പോൾ ഫ്രൂട്ട്സൊക്കെ മുറിക്കുമ്പൊഴും ഞങ്ങൾക്ക് അവര് തരുന്നുണ്ട് അപ്പോൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണ് താമസിക്കുന്നത് പക്ഷെ ഗ്രാമ പഞ്ചായത്തിലാണെങ്കിലും ഞങ്ങള് ഞങ്ങളുടെ പഞ്ചായത്തുകാരുവായിട്ട് സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ആ നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ റോഡിന് സൗകര്യമില്ലാത്തത് കൊണ്ട് അവര് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരാതെയായി ആ റോഡുകള് ഞങ്ങൾക്ക് വികസിപ്പിച്ച് തരണമെന്ന് പഞ്ചായത്തിനോട് ഞങ്ങള് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഞങ്ങൾക്ക് അത് ചെയ്ത് തന്നിട്ടില്ല ഞങ്ങളൊരു കുഗ്രാമത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് ടൂറിസ്റ്റ്കാരെ പിന്നെ ഞങ്ങൾ കാണുന്നത് ആലപ്പുഴയിൽ ചെല്ലുമ്പൊഴാണ് കൂടുതല് സഞ്ചാരികളെ കാണുന്നത് അവര് ഞങ്ങളെ നോക്കി ചിരിക്കുകയും ഞങ്ങൾക്ക് റ്റാറ്റാ പറയുകയും ഞങ്ങളും അതുപോലെ തിരിച്ച് അവരെ ടാറ്റാ പറയുകയുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവര് ഞങ്ങളോട് അവര് നല്ല മനുഷ്യരാണ് അവരേ കൂടുതലും നമ്മള് പല സംഭവങ്ങളും ആ അവർക്ക് നമ്മള് മലയാളികള് പിന്നെ കുറച്ച് അവർക്ക് വേദനിപ്പിക്കുന്ന രീതിയിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് നമ്മൾക്കത് വായിക്കുമ്പോൾ പത്രത്തിൽ കൂടെയും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾക്കൊരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ടൂറിസ്റ്റ്കാരെ കൊണ്ട് നമ്മൾക്കൊരുപാട് കാര്യങ്ങളും അതുപോലെ നമുക്ക് നല്ല വരുമാനവും ഉണ്ടാക്കി തരുന്നവരാണ് അവര് അതുകൊണ്ട് നമുക്ക് അവരോട് നമ്മള് നല്ല രീതിയിൽ പെരുമാറണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതായത് ഗ്രാമ പഞ്ചായത്ത് ആയതുകൊണ്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് എല്ലായിടത്തും ചെന്ന് തരാൻ പറ്റത്തില്ല കാരണം അവിടെ ഗവണ്മെൻറ്റിന് ഒന്നും ഇല്ല ഒന്നും ഇപ്പം ചെയ്ത് തരാൻ പറ്റത്തില്ല എന്നാണ് പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പറഞ്ഞു തരുന്നത് കാരണം ഞങ്ങളുടെ റോഡ് വികസിപ്പിച്ചെങ്കിൽ അല്ലേൽ ടൂറിസ്റ്റ്കാരുവായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ അടുക്കാനും അല്ലെങ്കിൽ അവിടെ ഒരു ഹോം നടത്തി അവർക്ക് ഫുഡ് ഏർപ്പാടാക്കി കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് നല്ല റോഡ് വേണം വാഹന സൗകര്യങ്ങള് വേണം ഞങ്ങൾ ഒരു ഇട റോഡിൽ ടൂ വീലറ് മാത്രം കയറുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങള് താമസിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ കൂടുതൽ അത് വിപുലീകരിക്കാൻ സാധിക്കും സാധിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഗ്രാമപഞ്ചായത്തുകൾ വഴി ഞങ്ങൾ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് എന്ന് പ്രാബല്യത്തിൽ വരും അന്നേരം കൂടുതല് അവിടെ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ടൂറിസ്റ്റ്കാര് വരുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ആഘോഷവോടെ പിന്നെ അവര് പാടങ്ങളൊക്കെ കാണാൻ വരും അവര് കൊയ്ത്ത് മിഷ്യൻ കാണും കൊയ്ത്ത് മിഷ്യനിൽ കയറും അവര് അതുപോലെ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുള്ള കാര്യവാണ് കുട്ടനാട്ടിലെ കുട്ടനാട്ടുകാർക്ക് അതുപോലെ തന്നെ മീനും അവർക്ക് നമ്മുടെ സദ്യയുമൊക്കെ ഭയങ്കര ഇഷ്ടവാണ് ആ സദ്യയൊക്കെ അവര് ഒരുപാടത് കഴിക്കുന്നുമുണ്ട് അതുപോലെ നല്ലതാന്നാണ് അവര് പറയുന്നത് അതുപോലെ കരിമീന് അതുപോലെ പൊള്ളിച്ചു കൊടുക്കുക ഇറച്ചി പൊള്ളിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് അവരുടെ ആഹാരം വൈകുന്നേരം ആണെങ്കിലും അവർക്ക് കാപ്പിക്ക് ഏത്തയ്ക്ക അപ്പം ചായയാണ് അവർക്കിഷ്ടമുള്ള ആഹാരം അങ്ങനെ ഹൗസ് ബോട്ടിൽ അവര് യാത്ര ചെയ്യുമ്പോഴും നമ്മളെ ഒക്കെ ഒരുപാട് സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് അതുപോലെ ഹൗസ് ബോട്ട് അടുക്കുമ്പോൾ നമ്മള് അതിൽ കയറുകയും അവര് അവർക്ക് ഭയങ്കര സന്തോഷവാണ് അതൊക്കെ അപ്പം ഞങ്ങള് കുട്ടികളായിരുന്നപ്പം തന്നെയും ഞങ്ങള് ടൂറിസ്റ്റ്കാരെ കാണുന്നതാണ് അന്നൊക്കെ ഇത്രയും ഹൗസ് ബോട്ടില്ല ആ ഹൗസ് ബോട്ടെന്നു പറഞ്ഞാൽ ഒന്നോ രണ്ടോ എണ്ണവേ ഉള്ളൂ അല്ലെങ്കിൽ ചെറിയ വള്ളങ്ങളിലാണ് അന്നവര് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവര് വന്ന് വാഹന സൗകര്യം കഴിഞ്ഞാൽ ബോട്ടിൽ യാത്ര ചെയ്യുവായിരുന്നു അങ്ങനെ ഒക്കെയാണ് ഞങ്ങള് ആദ്യം അവരെ കണ്ടിട്ടുള്ളത് പിന്നെ പിന്നെയാണ് ഒരുപാട് വള്ളങ്ങളായി രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾക്ക് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ടൂറിസ്റ്റുകാരുടെ ഒരുപാട് കുറവുകള് നമുക്കുണ്ടായി അങ്ങനെ നമുക്ക് ഒരുപാട് പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ തരണം ചെയ്ത് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞാണ് ഇങ്ങനെ വരാൻ പിന്നെയും തുടങ്ങിയത് കാരണം പിന്നെ കൊറോണ വന്നു അതും മൂലം ഒരുപാട് ആൾക്കാര് വരാൻ വരാതായി